കോഴി വളർത്തുന്നത് വളരെ ജനങ്ങൾക്ക് വളരെ ഉപകാരമുള്ള ഒരു കാര്യമാണ് എന്നാൽ അത് മറ്റ് പരിസ്ഥിതിക്കും മറ്റ് സമൂഹത്തിൽ അയൽവാസികൾക്ക് പരിസ്ഥിതിയോടുള്ള പരിസ്ഥലത്തുള്ളവർക്കും ദോഷകരമായ രീതി ബാധിക്കാത്ത രീതിയിൽ വേണം കോഴിയെ വളർത്താൻ അതാണ് മെയ്ൻ ആയിട്ടുള്ളത് പിന്നെ കോഴി വളർത്തുമ്പോൾ അവർക്കൊക്കെ രോഗം വരാതെയും മറ്റ് പ്രശ്ന മൃഗാദികളിൽനിന്നും മൃഗങ്ങളെ ഇഴജന്തുക്കളെ ഇവയിൽനിന്നുള്ള ശല്യം വരാതെയും വളരെ സൂക്ഷിച്ച് വളർത്തേണ്ട ഒരു പക്ഷി ഇതിൽ പെട്ടതാണ് കോഴി വളരെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽത്തന്നെയും ആവശ്യസമയത്ത് വസന്തയും മറ്റ് രോഗങ്ങളും ഉണ്ടെങ്കിൽ അവയെ അവ കണ്ടുപിടിച്ച് അവക്ക് മരുന്നും പ്രതിരോധം കുത്തിവെപ്പും ഈവകയൊക്കെ ചെയ്ത് വളർത്തുക എന്നുള്ള ഗവൺമെൻറ്റിൻ്റെ നിയമങ്ങൾ അനുസരിച്ചാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ കൂടുതൽ കോഴിയെ വളർത്തിയാൽ വളർത്തുന്നിടത്താണ് ഈവക സംഭവങ്ങൾ നടക്കുന്നത് കോഴി എപ്പോഴും ഉപകാരമുള്ളതാണ് ഞാൻ കോഴിയെ വളർത്തി വളർത്തുന്ന ഒരാളാണ് ഇപ്പോൾ വളരെ കുറവാണ് മറ്റ് ശല്യങ്ങളുള്ളതുകൊണ്ട് പക്ഷെ അതിൽനിന്ന് മറ്റുള്ള മൃഗ ഗവൺമെൻറ്റൊ മറ്റ് പഞ്ചായത്തിൽനിന്നോ വള വേണ്ട ഉപകാരങ്ങളോ മറ്റ് ഇതൊന്നും വല്യ കാര്യമായിട്ട് ലഭിക്കുന്നില്ല അതുകൊണ്ട് ഇപ്പോൾ കൂടുതലും ഇതിൽനിന്ന് ആളുകൾ ഒഴിവാവുകയാണ് ചെയ്യുന്നത് മറ്റുള്ളവർക്ക് ദോഷം ചെയ്യുന്ന രീതിയിൽ വളർത്തി അത് അയൽവാസികൾക്ക് പ്രശനമുണ്ടാകുന്ന പല പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് അത് കാരണം ഇതിൻ്റെ എങ്ങനെ വളർത്തണം കോഴിക്ക് വേണ്ട സംരക്ഷണം എങ്ങനെ കൊടുക്കാന്നുള്ള മറ്റ് ഓരോ വാർത്തകളും ഞങ്ങൾ അതിനെ കർഷകദീപം കൃഷി ടീ വി കൃഷിദീപം എന്ന കർഷകമിത്ര എന്നുള്ള ഈ മാസികകളോ ചാനലുകളോ ഇതൊക്കെയുണ്ട് അതിൽനിന്നുള്ളത് അറിവുകളും പഠനങ്ങളും ആളെ മറ്റുള്ളവരിൽനിന്നുള്ള അറിവുകളും നേടിയെടുത്തിട്ടു വേണം ഈ ഏതൊരു ജോലിക്കും തയ്യാറാകുവാനായിട്ട് അതല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ദോഷവും പ്രകൃതിക്കും എല്ലാം ദോഷമാകുന്ന രീതിയിൽ ഈ കോഴിയുടെ വേസ്റ്റും മനുഷ്യന് നിക്ഷേപിക്കാനുള്ള സ്ഥലങ്ങൾ എവിടെയെങ്കിലും കണ്ടെടുത്ത് അതിനുള്ള ആൾക്കാരെ കണ്ടത്തുകയും അവ അങ്ങനെയുള്ള സുരക്ഷിതമായ സ്ഥലങ്ങളിലാണ് ഈ വേസ്റ്റും മറ്റും നിക്ഷേപിക്കുകയും ച്ചെയ്യുന്നത് കൂടുതൽ ആൾക്കാരും കോഴിക്ക് ഫുഡ്ഡും മറ്റും കൊടുക്കുമ്പോൾ ഒരു നിയത്രണവുമില്ലാതെ മറ്റുള്ളവർക്ക് വളരെ പ്രശ്നം ഉണ്ടാകുന്ന രീതിയിൽ ഒക്കെ ചെയ്യുന്നുണ്ട് അത് ഗവൺമെൻറ്റ് കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും ഇതൊക്കെ ചെയ്യുന്നത് കാരണം കുറേ പ്രയോജനപ്രദമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് കോഴിയെ കൂടുതൽ വളർത്തുമ്പോൾ പശു പനി ഈവക വസന്തകളും മറ്റും ഉണ്ടാകുന്നുണ്ട് അത് തക്ക സമയത്ത് കണ്ടുപിടിച്ച് പരിഹരിച്ചാൽ കൂടുതൽ ദോഷമില്ലാതെ കോഴികളെ ആണെങ്കിലും ഏതൊരു പക്ഷികളെ ആണെങ്കിലും വളർത്തുവാനായിട്ട് സാധിക്കും കോഴിയോ മറ്റേതൊരു ജീവിയാണെങ്കിലും വളർത്താം അതിന് വേണ്ട ശുശ്രൂഷകളും വരുന്ന രോഗങ്ങളും ഇതനുസരിച്ചുള്ള മരുന്നും മറ്റ് ഇതും കൊടുത്ത് അവരെ ശുശ്രൂഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യാൻ അതിന് ഉത്തരവാദിത്തപ്പെട്ടവരും ഉടമകളും തയ്യാറായാലേ ഏതൊരു കാര്യവും മുന്നോട്ട് വിജയമായിട്ട് പോവുകയുള്ളൂ അതനുസരിച്ച് ചെയ്യുവാനായിട്ട് പ്രയോജനം ചെയ്യുന്ന ആൾക്കാരെ സമീപിക്കുകയും അവരുടെ നിയമങ്ങളും ആജ്ഞകളും ഉപദേശങ്ങളും അനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പ്രയാസപ്പെട്ടവരും ഇത് മൃഗങ്ങളെ വളർത്തുന്നവരും തയ്യാറാകണമെന്ന് കോഴിയായാലും ഏതൊരു പക്ഷിമൃഗാതിയായാലും അതിന് തയ്യാറാകുവാൻ തയ്യാറാകണമെന്നാണ് പറയാനുള്ളത് അതിനുവേണ്ടുന്ന മാർഗനിർദേശങ്ങൾ ലഭിക്കുന്ന ഇടങ്ങൾ ഇടങ്ങളിൽ നിന്നുവേണ്ട ഉപകാരപ്രദമായ കാര്യങ്ങൾ തേടി കണ്ടെത്തി അവ അതനുസരിച്ച് മുന്നോട്ട് പോയാൽ ഏതു കാര്യവും വിജയപ്രദമായി പോവും എന്ന് ഞാൻ അറിയാൻ പറയുവാനുള്ളത് മനുഷ്യന് വളരെ വേണ്ടപ്പെട്ടതും വളരെ മറ്റ് ജീവികളിൽനിന്നും കോഴിയുടെ ഇറച്ചിയും മുട്ടയും വളരെ ഉപകാരപ്രദവും മറ്റ് ദോഷമില്ലാത്തതും മാംസവുമൊക്കെയാണ് കോഴിയുടെ അതുകൊണ്ട് കൂടുതൽ ആൾക്കാർ കൂടുതൽ ഇതിനെ ഉപയോഗിക്കുകയും വളർത്തുകയും ചെയ്യുന്നുമുണ്ട് വളർത്താൻ കൂടുതൽ എളുപ്പവും മറ്റ് ജീവികൾക്ക് ആഹാരം കുറവും വേണ്ട ഒരു ജീവിയാണ് അതിന് അനുസരിച്ച് അതിൻ്റെ ശുശ്രൂഷയും മറ്റും ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ഇതിനെ വളർത്തുന്നവർ ശ്രദ്ധിക്കുകയും അത് അനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യണം